എനിക്കൊരു മകനാണ് ഉള്ളത് അവന് ഒരു വയസ്സായി അപ്പം അവനെത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നു വച്ചാൽ മാക്സിമം അതായത് എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഇതിലെല്ലം പിന്നെ അവനും സഹകരിക്കണം അതിന് അവന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവനും വേണം അപ്പോൾ അവന് അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്നു പറഞ്ഞാൽ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിപ്പിക്കും അപ്പോൾ അവനെന്താണ് ഏത് രീതിയിൽ എത്തണം എന്ന് അവനൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ ഇന്ന ജോലി വേണം ഇത്രയും പഠിക്കണം എന്നൊക്കെ ആ ഒരു രീതിയൽ ഉണ്ടെങ്കിൽ അത്രയും ഞങ്ങൾ പഠിപ്പിക്കും അവനെ